ഞാന് പത്തീസം മുന്നേ ഫാസാക്കാൻ്റെ കല്ല്യാണത്തിന് എൻ്റെ ഫാസാക്കാൻ്റെ കല്ല്യാണത്തിന് ഞാന് കുടുംബെല്ലാരുംകൂടി ഒപ്പം കടേക്കൊയാണ്ട് ഡ്രെസ്സെടുത്തു കസവു കേന്ദ്രയില്നിന്ന് ആ ഡ്രെസ്സ് ഒരു പത്തീസിട്ട് തിരുമ്പി എന്നിട്ടതിൻ്റെ ക്ലോത്തൊക്കെ ആകപ്പാടെ ചുരുങ്ങി ഇല്ലാതായി അതേ കുപ്പായം തന്നെ എൻ്റെ നാട്ടില് പുൽപ്പറ്റ നാട്ടില് പള്ളീൻ്റടുത്തുള്ള കടയില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്പത് ഉറുപ്പ്യക്ക് കിട്ടും ആ കുപ്പായത്തിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്പത് ഉറുപ്പ്യക്ക് കിട്ടണേ ആ ഡ്രെസ്സ് ഞാന് വാങ്ങിച്ചുനോക്കിയപ്പോള് ആ കുപ്പായം വാങ്ങിച്ചുനോക്കിയപ്പോള് നല്ല കുപ്പായം ഒരു മാസം വരെ ഞാന് ഇട്ടു എന്നിട്ടൊത്തും പറ്റിയില്ല ഞാനെന്താണു കാട്ടുക നിങ്ങള് പറയൂ